എൻ്റെ പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോണാണ് ഐ ഫോൺ ആണ് ഐ ഫോൺ തേർട്ടീൻ പ്രൊയാണ് അത് അത്യാവശ്യം അതായത് എനിക്ക് ആദ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ആയിരുന്നു അതായത് റിയൽമിൻ്റെ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ആയിരുന്നു അപ്പോൾ പിന്നെയാണ് ഞാൻ ഫോൺ അതായത് ഐ ഫോൺ അതായത് ഇപ്പോൾ എല്ലാരുടെ കയ്യിലും ഐ ഫോൺ ഇണ്ടല്ലോ അപ്പം എനിക്കും ഐ ഫോൺ മേടിക്കണം അതായത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ഇ എം ഐ ഇട്ട് മേടിച്ചതാണ് ഐ ഫോൺ അത്യാവശ്യം നല്ല ഫോണാണ് അതായത് എൻ്റെ ഫോണിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്യാമറ ക്വാളിറ്റി ഉള്ളൊരു ഫോൺ മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ മേടിച്ചതാണ് ഈ ഐ ഫോൺ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അതായത് ആദ്യം തന്നെ കൊണ്ടു വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫോട്ടോയാണ് എടുത്തു നോക്കിയത് പിന്നെ അതുകൊണ്ടുതന്നെ നല്ല അടിപൊളി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി നമുക്ക് നല്ല വ്യൂയിൽ നല്ല രസത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാം നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന പോലെ തന്നെ ഫോട്ടോ എടുക്കാം പിന്നെ ബാക്കി ഉപയോഗങ്ങളൊക്കെ നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് സെറ്റിൻ്റെ ഉപയോഗങ്ങൾ തന്നെ ആണെങ്കിലും പിന്നെ ജി ബി അതായത് റാമും റോമും ഒക്കെ കൂടുതലായിരിക്കും അങ്ങനെയുള്ളൊരു വ്യത്യാസം ഒക്കെ ഉണ്ടാവുകയുള്ളൂ നല്ല അടിപൊളി ഫോണാണ് പോസിറ്റീവ് റിവ്യൂ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളു